വായുമലിനീകരണം ജലമലിനീകരണം വനഭൂമിയുടെ വനഭൂമിയുടെ അളവിലുണ്ടാകുന്ന കുറവ് തുടങ്ങിയവയൊക്കെ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ പാരിസ്ഥിക പ്രശ്നങ്ങളാണ് അതുപോലെ ഭൂഗർഭ ജലത്തിൻ്റെ അതിൻ്റെ അളവിലുണ്ടാകുന്ന കുറവൊക്കെ അപ്പോൾ വ്യവസായിക ആവശ്യങ്ങൾക്കൊക്കെവേണ്ടി നമ്മൾ മനുഷ്യർ പ്രകൃതിയെ പരിധിയില്ലാതെ ഉപയോഗിക്കുമ്പോഴ് ഇവയിലൊക്കെ പരിസ്ഥിതിക്കും ജനങ്ങൾക്കും മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കുമൊക്കെ ഉപദ്രവകരമായിട്ടുള്ള ഒരു അവസ്ഥ കടന്ന് വരാനായിട്ട് ഇടയാകുന്നുണ്ട് പ്രത്യേകിച്ച് വ്യവസായശാലകളിലൊക്കെ ഉപയോഗിക്കു ന്ന ജലത്തിൻറ്റെയളവ് പിന്നെ മാലിന്യ സംസ്കരണം ഒക്കെ നടത്താതെ വരുന്നത് അതുപോലെത്തന്നെ മലിനജലം അത് പുഴയിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കുമൊക്കെ എത്തിച്ചേരാനിടയാകുന്നതൊക്കെ ഈ ജലമലിനീകരണത്തിന് കാരണമാകുന്നു അതുപോലെ അമിതമായ്ട്ടുള്ള വായുമലിനീകരണം വാഹനങ്ങളൊക്കെ അതിധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന വായുമലിനീകരണം അതുപോലെ ഇലക്ട്രോണിക്ക് യന്ത്രങ്ങൾ അവയുടെ ഉപയോഗംമൂലമുണ്ടാകുന്ന ദോഷകരമായ വാതകങ്ങൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വായുമലിനീകരണത്തിനെല്ലാം ഇടയാക്കുന്നു പിന്നെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ കെട്ടിടങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഭൂമി പ്രകൃതിയുടെ ഭൂമിയുടെതന്നെ നിലനിൽപ്പിന് വലിയവിധത്തിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മരങ്ങളൊക്ക നമ്മൾ ആവശ്യത്തിൽ അധികമായിട്ട് മുറിച്ച് ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് വനഭൂമിയുടെ അളവ് കുറയുന്നു വനങ്ങളിൽ ഉള്ള വന്യജീവികൾ ആഹാരംതേടിയും ജലം തേടിയുമൊക്കെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്ന് വരുന്നു ഇത് മൻഷ്യർക്ക് വലിയ ഭീഷണിയാണ് ഇപ്പോഴ് കേരളത്തിലൊക്കെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വന്യജീവികളുടെ ആക്രമണം അനേകമാളുകൾക്ക് ഈ വന്യജീവികളുടെ ആക്രമണംമൂലം ജീവൻ നഷ്ടപ്പെടാനും ഒക്കെ ഇടയായിട്ടുണ്ട് അനേകർക്ക് തങ്ങളുടെ കൃഷിഭൂമിയും വീടുമൊക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ട സ്ഥിതികളൊക്കെയുണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അധികാരികൾ സർക്കാറുകൾ വേണ്ടവിധത്തിലുള്ള ഒരു വേണ്ടവിധത്തിലതൊക്ക കൈകാര്യം ചെയ്യാത്തതുമൂലം സാധാരണജനങ്ങൾക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നദികൾ പലതും വറ്റിവരളുന്നു അല്ലെങ്കിൽ അവയുടെ വിസ്തൃതിയൊക്കെ കുറയുന്നു അവയുടെ ജലം കുറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു കാടുകൾ കാടുകളുടെ വിസൃതി വിസ്തൃതി കുറയുന്നു മലകളും കുന്നുകളുമൊക്കെ ഇടിച്ച് നിരത്തി അവിടെ വലിയ കെട്ടിടങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രകൃതിയുടെ തന്നെ രൂപഭംഗിയെല്ലാം നഷ്ടപ്പെടാന്നു നഷ്ടപ്പെടാനിടയാവുന്നു അതുപോലെത്തന്നെ മണ്ണിടിച്ചിൽ മാലിന്യങ്ങളൊക്കെ കടലിലേക്കും പുഴകളിലേയുമൊക്കെ ഒഴുകിച്ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് കടൽ കരയിലേക്ക് കൂടുതൽ കയറിവരാനായിട്ട് ഇടയാവുന്നു കൃഷിയിടങ്ങൾ പലപ്പോഴും അതൊക്കെ മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തങ്ങളും വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും ഭൂകമ്പങ്ങളൊക്കെമൂലം ഇങ്ങനെ പ്രകൃതി വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് വരുന്നു അതുപോലെത്തന്നെയിപ്പം കാലാവസ്ഥ പണ്ടൊക്ക നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ജൂൺ ജൂലയ് മാസങ്ങളൊക്ക മഴ മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ വേനൽക്കാലമാണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും കൃത്യം പറയാനായിട്ട് പറ്റാത്തയൊരു സ്ഥിതിവിശേഷം ആ വിധത്തിൽ കാലാവസ്ഥയെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഇപ്പം ഏത് മാസത്തിൽ വേണമെങ്കിലും മഴയൊക്കപ്പെയ്യും അപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോഴ് മഴ പെയ്യുന്ന മാസങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കാത്തവിധത്തിൽ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാലമാണിത്